നമ്മുടെ കാലത്തുള്ള പഠന രീതികളോ കാര്യങ്ങളും ഒന്നുമല്ല പണ്ട് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ വെറുതെ ജയിപ്പിച്ചു വിടുകയും അതിന് ശേഷം പത്താം ക്ലാസ് എസ് എൽ എൽ സി മുതൽ നമ്മൾ ശരിക്ക് പഠിച്ച് എഴുതി ജയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് ഉള്ളത് മാത്രമല്ല ഇന്ന് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ്റും അല്ലാതെയും പ്രൈവറ്റായിട്ടും ഒക്കെ നമുക്ക് ഉണ്ട് ക്യാഷ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ നമ്മളെ എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം നമ്മൾക്ക് പഠിപ്പിച്ച് തരിക അതല്ലെങ്കിൽ നമ്മളെ പഠിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഉള്ളത്

പത്താം ക്ലാസൊന്നും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവരുടെ ഒക്കെ മാക്സിമം ചിലപ്പം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സൊക്കെ ആയിരിക്കും ഒരു ആവറേജ് ഒരാൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസൊക്കെ ആയിരുന്നു അവർക്ക് വായിക്കാനറിയുക എഴുതാൻ അറിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാൽ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലത്ത് എന്ന് പറയുമ്പോൾ സ്കൂളുകൾ വളരെ കുറവാണ് ഗവൺമെൻറ് സ്കൂള് തന്നെ വളരെ നല്ല സൗകര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല ഇന്നത്തെ പോലത്തെ കെട്ടിടങ്ങളൊന്നും അല്ല അന്ന് ഉണ്ടായിരിക്കുക ചോർന്നൊലിക്കുന്ന പല സ്ഥലത്തും നിലത്തിരുന്ന് കൊണ്ട് വേണം അവർ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന നാലാം ക്ലാസ്സോ അത് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയും പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ മുഴു പട്ടിണി ആയത് കൊണ്ട് തന്നെ പണിക്ക് പോകേണ്ടി ഇരിക്കുന്ന ഒരു അവസ്ഥ അതായിരുന്നു അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് പിന്നെ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ അവരൊന്നും സ്കൂൾ എന്നുള്ള സ്കൂൾ എന്നോ കോളേജ് എന്നോ പേര് പോലും അവർ കേട്ടിട്ടുണ്ടാവുകയില്ല അന്നത്തെ ആളുകളിൽ നിന്ന് ഡോക്ടർമാർ എങ്ങനെ ഉണ്ടായി അത് അല്ലെങ്കിൽ എം ബി ബി എസ് ഒക്കെ എം ബി ബി എസും അത് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ എൻജിനീർമാരൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് അന്നെല്ലാം മുഴുപട്ടിണി കാരണം അവർ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ വിദ്യാഭ്യാസം എന്നുള്ളതിനും ജീവിച്ചാൽ അല്ലേ വിദ്യാഭ്യാസം വേണ്ടതുള്ളൂ എന്നുള്ള അവസ്ഥയിലായിരുന്നു അന്നുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് തികച്ചും അവസ്ഥകൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാം പഠനം നിർബന്ധമാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിരിക്കുന്നത് കാരണം അതൊരു മനുഷ്യൻ്റെ അവകാശമാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവകാശമായിട്ടാണ് ഇന്ന് ഇവിടെ ഉള്ളത്